ഇല്ല ഇല്ല ഇല്ല മലയാളത്തിലെ ഭാഷഭേദങ്ങൾ അങ്ങനെ യൂസ് ചെയ്തട്ടില്ല എയ് ഇപ്പം നമ്മൾ ഈ ഇടുക്കിക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടത്തേത് ആയൊരു ലാംഗ്വേജായിരിക്കും അതായത് പ്യുവറായിട്ടുള്ള മലയാളം എന്നുള്ള കാര്യങ്ങൾ ഒക്കെയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോയാലും നമ്മൾ ഈ ഈ ഭാഷ തന്നെ ഇരിക്കും നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് അല്ലാണ്ട് ഈ തൃശ്ശൂരിലെ സ്ലാങ് തൃശ്ശൂരിലിങ്ങനെ സ്ലാങ് കേട്ടിട്ടുണ്ട് കൂടെ പഠിക്കുന്ന ഒരുത്തൻ തൃശൂർകാരൻ ആയതുകൊണ്ട് അവിടത്തെ സ്ലാങ് കേട്ടിട്ടുണ്ട് കാസർഗോഡ് കാസർഗോഡ് സ്ലാങ് കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം സ്ലാങ്ങ കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാ സ്ലാങ്ങും കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും യൂസിയാനോ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ പഠിക്കാൻ പഠനവരെ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഈ പ്യുവറായിട്ടുള്ള മലയാളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല കേൾക്കാൻ നമുക്ക് ഓരോ നമ്മളുടെ ഇവിടുത്തെ ഭാഷയിലെ അർത്ഥം അല്ലായിരിക്കും അവിടുത്തെ ഭാഷയിലെ അർത്ഥം ഇപ്പം നമ്മൾ ഇവിടെ എന്തേലും ചീത്ത വേടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അവിടുത്തെ നല്ല വേഡ് അതുകൊണ്ട് ഈ അവിടുത്തെ ചീത്തവിളി ഇവിടെ വേറെ വല്ലതും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അതുകൊണ്ട് ഈ ഭാഷ ഭേദങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സ്ലാങ് സ്ലാങ്പരമായും പിന്നെ അർത്ഥപരമായും അർത്ഥത്തിലാണ് ഇതിനെ കൂടുതലും മാറ്റം വരുന്നത് ഇവിടുത്തെ തന്നെയായിരിക്കും അവിടെ എന്നാ ഇപ്പം തന്നെ എക്സാമ്പിളായിട്ട് പഴംപൊരി പഴംപൊരിന്ന് പറയുന്നത് ഇടിക്കിക്കാർ ബോളീന്ന് പറയുന്നത് ഇടിക്കിക്കാർക്ക് പിന്നെ കോട്ടയംകാർക്ക് ബോളി വേറെ ആയിരിക്കും മറ്റേ പപ്പടബോളി ആയിരിക്കും അവർക്ക് ഏത്തയ്ക്കാ ബജ്ജീ എന്നായിരിക്കും പത്തനംതിട്ടക്കാരായിരിക്കും പറയുന്നത് അതുകൊണ്ട് ഇത് പല രീതിയിൽ ആയിരിക്കും അറിയപ്പെടുന്നത് അതുകൊണ്ട് ഇതിനെപറ്റി ധാരണ ഒന്നും ഇല്ല